പ്രിയമുള്ളവരെ ഞാൻ സാനിയോ ഒരു പുതിയ ഉപകരണം വാങ്ങാൻ പദ്ധതി ഇടുന്നുണ്ട് അത് നിങ്ങളുടെ കർബിൻ്റെ റേറ്റ് ആണ് എനിക്ക് അറിയേണ്ടുന്നത് റേറ്റ് ഇതും ഞാൻ വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ ഇത് കൂടെ ചേർത്തു ഏത് എത്ര ബില്ലാവും എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് കാരണം എനിക്ക് ഇതിൻ്റെ മറുപടി തരിക ഓക്കെ ശരിയാണ് നിങ്ങളുടെ മകനോടും മകളോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്